ഹലോ പറഞ്ഞോളൂ ആ അതെല്ലോ ട്രാവൽ ഏജൻസിയാണ് ആ അതെ അതെ ഗീത മെട്രോ നിങ്ങളെത്ര പേര് കാണുവായിരക്കും ഓക്കെ ഏഴ് പേരോളം അപ്പോൾ നിങ്ങള് വലിയ ഇന്നോവ വണ്ടി നോക്കുന്നോ അതോ അമേസ് പോലത്തെ വല്ല വണ്ടിയും മതിയോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കിലോമീറ്ററ് നമ്മള് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണേ ഇപ്പം ഏ സി ഇല്ലാത്ത ഏ സി ഇല്ലാത്ത എ സി ഇല്ലാതെ ആണെങ്കിൽ നൂറ്റമ്പത് എ സി വേ എങ്ങനെ ഇടണോ ഫുൾ ടൈം വേണമെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ചാർജ് കൂടും ഇരുന്നൂറ്റമ്പതൊക്കെ ആവും ഓക്കെ എന്നത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ഇല്ല അഡീ നിങ്ങൾ അഡീഷണല് കൊടുക്കുകയൊന്നും വേണ്ട നിങ്ങള് വേണമെങ്കിൽ ടിപ്പ് എന്തെങ്കിലും കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മള് കമ്പനി തന്നെയാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്

ഓക്കെ ചൊവ്വാഴ്ച നിങ്ങള് വാട്ട്പ്പിസപ്പിൽ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടാൽ മതി അപ്പോഴേക്കും ഞാൻ ഡ്രൈവറിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാം ആ ഓക്കെ ഓക്കെ ശരി ശരി ആ അഡ്വാൻസായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണേ അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പോൾ ഒരാളെ ബുക്ക് ചെയ്ത് ഒര് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങള് അഡ്വാൻസ് ചെയ്താൽ മതി

ഓക്കെ ഓക്കെ ഓക്കെ ശരി നിങ്ങള് ലൊക്കേഷനും ഡീറ്റെയിൽസും ഇട് അപ്പം ഞാൻ ഡ്രൈവറുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അങ്ങോട്ടിട്ട് തരാം ആ ഓക്കെ ഓക്കെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഇട്ട് തരാം